നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ ഈ ഈ ഒരു കാലത്ത് ഈ ഒരു ജനറേഷനിൽ ഇൻ്റർനെറ്റിന് ഇൻ്റർനെറ്റുകൾക്കും നവമാധ്യമങ്ങൾക്കും മനുഷ്യരുടെ ജീവിതത്തിൽ വ്യക്തികളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കാരണം ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുക എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇന്നൊരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് അത് ഏതൊക്കെ രീതിയിൽ വിജയിപ്പിക്കാമെന്നതിന് ഒരു ഒരു അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കാനിന്ന് നവ മാധ്യമങ്ങൾക്കും ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾക്കും അതു കഴിഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്കാവട്ടെ വാട്സ്അപ്പാവട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ട്വിറ്റർ ആയിക്കോട്ടെ അങ്ങനെ പലതരത്തിലും കാരണം ഇന്നൊരു തുടങ്ങിക്കഴിഞ്ഞാൽ പണ്ടത്തെപ്പോലെ നമുക്ക് കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങിക്കേണ്ട ഏത് അവസ്ഥയിലും ഏതു സാഹചര്യത്തിലും ആ നമ്മുടെ ബഡ്ജറ്റിൽ നമ്മുടെ കയ്യിലൊതുങ്ങുന്ന തരത്തിലുള്ള പല സാധനങ്ങളും ഓൺലൈൻ വഴിയോ ഈ നവമാധ്യമം മാധ്യമങ്ങൾ വഴി വാങ്ങിക്കാനും അതു നമ്മൾ നേരിട്ടുപോയി വാങ്ങുന്ന ആ ഒരു വിശ്വാസത്തോടുകൂടിത്തന്നെ നമുക്കത് നവമാധ്യമങ്ങളിൽക്കൂടി വാങ്ങിക്കാൻ സാധിക്കുന്നു അതുകൊണ്ടത് ഇപ്പോഴത്തെ മനുഷ്യരുടെ ഇപ്പോഴത്തെ വ്യക്തികളുടെ തിരക്കുപിടിച്ച ഈ ഒരു ജീവിതത്തിലും ഇപ്പോഴത്തെ വ്യക്തികളുടെ ജീവിതത്തിൽ അതൊരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യം തന്നെയാണ്